ഞാനെൻ്റെ സ്കൂൾ കാലം ഓർക്കുമ്പോഴത്തേക്കും ധാരാളം ഓർമ്മകളെനിക്കുണ്ട് അതുപോലെ തന്നെ അതില് പ്രധാനമായി ഞാന് ഓർക്കാനാഗ്രഹിക്കുന്നൊരു കാലഘട്ടമാണ് സ്കൂൾ കാലഘട്ടത്തിലെ കായിക വിനോദങ്ങൾ കായിക വിനോദമെന്നു പറയുമ്പോഴത്തേക്കും തികച്ചും നമുക്ക് എപ്പോഴും മറക്കാനാവാത്തൊരോർമ്മ സമ്മാനിച്ച കുറേ നല്ല നിമിഷങ്ങളതിലുണ്ടായിട്ടുണ്ട് കായിക ഇനങ്ങളിൽ തന്നെ ഓട്ടം ചാട്ടം നാരങ്ങ നാരങ്ങ സ്പൂൺ അങ്ങനത്തെ കുറേ കായികമായ വിനോദങ്ങളും കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ അതുകൊണ്ട് തന്നെയായിട്ടും നമുക്കിതില് ധാരാളമായി കുറേ കാര്യങ്ങൾ ഓർത്തിരിക്കാനുള്ള നല്ല നിമിഷമുണ്ടായിട്ടുണ്ട് അതും നമ്മുടെ സുഹൃദ് ബന്ധങ്ങൾക്ക് ഏറ്റവും ഒരു നെടും തൂണെന്നൊക്കെ പറയുന്ന സ്കൂൾ കാലഘട്ടങ്ങളുണ്ടാവുന്നത് അതുപോലെ തന്നെ നമുക്ക് സ്കൂൾ കാലഘട്ടമെന്നു പറയുമ്പോള് നമ്മളിപ്പോള് എന്താണേലും പത്താം ക്ലാസ് കഴിയുന്നത് വരെ ഉള്ള ഒരു കാലഘട്ടത്തെയാണ് സ്കൂൾ കാലഘട്ടം നമ്മള് പറയുന്നത് അപ്പോള് അതിനനുസരിച്ച് നമ്മൾ ഓരോ സുഹൃദ് ബന്ധങ്ങളെ നമ്മള് കാണുന്നു നമ്മുടെ ജീവിതത്തില് തന്നെ നമുക്ക് മറക്കാനാവാത്ത അനുഭവങ്ങളും ഓർമ്മകളും അതിൽ നമുക്ക് സമ്മാനിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ കായിക ഇനങ്ങൾ എനിക്കെന്നു പറയുമ്പോള് ഞാൻ സ്കൂളുകളില് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഓട്ടത്തിനും ചാട്ടത്തിനും ഒക്കെ അത്യാവശ്യം കമ്പവും കാര്യങ്ങള് ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തി തന്നെയാണ് ഞാൻ അതുപോലെ തന്നെ ഇതുപോലെ സ്കൂൾ കാലഘട്ടത്തില് ധാരാളം സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് കിട്ടിയതു പോലെ തന്നെ നമുക്കതിലൊരു അതിലുള്ളൊരു അഭിരുചി നമ്മളന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഈ ഓട്ടത്തിലും ചാട്ടത്തിലൊക്കെ നില്ക്കുമ്പോള് ഞങ്ങളുടെ സ്കൂളുകളെന്നു പറഞ്ഞു കഴിഞ്ഞാല് ഇതുപോലെ സ്പോർട്സ് ഡേയുടെ അതായത് കായിക വിനോദത്തിൻ്റെ ഒരു ദിവസമുണ്ട് ആ ദിവസം സ്കൂളിലുള്ള എല്ലാവരും സഹപാഠികളെല്ലാവരും കൂട്ടുകാരും കൂടെ പഠിക്കുന്നവരും എല്ലാവരും കൂടെ ചേർന്ന് ടീച്ചേഴ്സും അങ്ങനുള്ളവരെല്ലാരും കൂടെ ചേർന്ന് ഇതുപോലെ തന്നെ സ്കൂൾ സ്പോർട്സ് മീറ്റുകൾ കണ്ടക്റ്റെയ്യേം എല്ലാ ഓ എല്ലാ ക്ലാസുകാരുമായി ക അങ്ങോട്ടുമിങ്ങോട്ടും മത്സരങ്ങൾ ക സംഘടിപ്പിക്കുകയും ചെയ്യാറുണ്ട് അത് തന്നെ നമുക്ക് നല്ലൊരോർമ്മകൾ സമ്മാനിച്ച് കുറേ നല്ല സുഹൃദ്ബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളാണതിലുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഓട്ടത്തിനെ കുറിച്ച് പറയാണെങ്കിൽ ഞാൻ ഓടാനായിട്ട് അത്യാവശ്യം നല്ല താല്പര്യമുള്ളൊരാളായിരുന്നു ഞാൻ പണ്ട് അതില് കുറേ നല്ല പോലെ ശ്രദ്ധ ചെലുത്തിയിരുന്നൊരാളാണ് ഇപ്പോൾ നിലവില് ഞാനങ്ങനെ ഓട്ടത്തിലങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്തിരുന്നാലും നമുക്ക് അതിലെപ്പെഴുമൊരു ഓർമ്മകൾ ഒളിഞ്ഞിരിപ്പുണ്ട് അതെപ്പോഴും ഓർക്കാനും അതിനെ കുറിച്ച് പറയാനും എനിക്ക് തീരെ തീർത്തും ഒരു ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ് അങ്ങനെ നമുക്ക് പറയുകയാണെങ്കിൽ നല്ല നിമിഷങ്ങൾ പങ്കുവയ്ക്കുകയാണെങ്കിലും ഇപ്പോൾ ഞങ്ങളുടെ ഞാൻ പഴയൊരു നടന്ന സംഭവം അത് ഞാൻ പത്താം ക്ലാസില് പഠിക്കുന്ന കാലഘട്ടത്തില് എനിക്ക് സ്കൂളുകളിൽ ഇതുപോലെ സ്പോർട്സ് ഡേ വയ്ക്കുമ്പോഴത്തേക്കും അതില് നല്ല കൂട്ടുകാരാ നമ്മള് കൂട്ടുകാരാണേലെത്ര വാശിയുള്ള ആൾക്കാരാണെങ്കിലും ഇതുപോലെ ഒരു ഒരു ഒന്നിച്ചുനിന്ന് ആ ഒരു കാര്യങ്ങൾ ക നടത്താനും അതില് പങ്കെടുക്കാനും അതുപോലെ തന്നെ അങ്ങോട്ടിങ്ങോട്ടൊരു മത്സരം എന്ന് നടക്കുമ്പോഴും ഇതിലുപരി അതിൽ നിന്നുണ്ടാകുന്നൊരു സന്തോഷം കാര്യങ്ങളൊക്കെ ഇന്നും നമുക്കോർത്തിരിക്കാന് പറ്റുന്ന കാര്യങ്ങളാണ് ഞാനതു പോലെ തന്നെ ഓർത്തിരിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായി സംസാരിക്കുമ്പോള് ഞാനിത് പങ്കുവയ്ക്കുകയും ചെയ്യാറുണ്ട് ഇത് എപ്പോഴും നമുക്ക് നല്ലതായൊരു കാര്യമാണ് കാര്യം സ്കൂളുകളില് നിമിഷങ്ങൾ നമുക്ക് എന്നും വിലമതിക്കാനാവാത്തൊരു സ സംഭവം തന്നെയാണ് നമ്മളതെന്നും നമ്മുടെ മനസ്സിനോട് ചേർത്തുവയ്ക്കുകയും ഓർത്തിരിക്കുകയും ചെയ്യും അത് നമ്മളിപ്പോൾ ഇപ്പോള് നമുക്കറുപത് വയസ്സായാലും നമ്മള് തൊണ്ണൂറ് വയസ്സായാലും ഇപ്പോൾ നമുക്ക് നാല്പത് വയസ്സായാലും നമ്മള് ജീവിതത്തിൻ്റെ ഒഴുക്കിലൂടെ പോയിക്കഴിഞ്ഞാലും നമ്മുടെ സ്കൂൾ കാലഘട്ടമെന്നു പറയുന്നത് എന്നും നമുക്ക് പ്രിയങ്കരവും അതിലുപരി ഓർമ്മ നൽകുന്നതുമാണ് ഒത്തിരി അധികം ഓർമ്മകൾ എനിക്ക് പറയാനുണ്ട് നമുക്കതില് അതില് തന്നെ കായികങ്ങളുടെ കാര്യം പറഞ്ഞ് കഴിഞ്ഞാലും അതില് നമ്മള് എൻ്റെ കൂടെ പഠിച്ചവരെല്ലാവരും അത്യാവശ്യം കായിക കാര്യങ്ങളിൽ താല്പര്യമുള്ളവരായിരുന്നു അങ്ങോട്ടുമിങ്ങോട്ടും മത്സര ബുദ്ധി കാണിച്ചിട്ടുണ്ട് എന്തിരുന്നാലും നമ്മളതൊക്കെയൊരു പ്രായത്തിൻ്റെ ഒരിതിതായിട്ടും അത് അതിലുപരി ഒരു സുഹൃദ് ബന്ധത്തിൻ്റെ ഒരു വേറൊരു അധ്യായം എന്ന രീതിയിലാണ് ഞാനതിനെ കണ്ടു കൊണ്ടിരുന്നത് ഇ ഇത്രയൊക്കെയാണ് എനിക്കിതില് പറയാനുള്ളത്